ഞാനൊരു റെസ്റ്റോറന്റിൽ പോവുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനെ വിളിക്കും വിളിച്ചതിന് ശേഷം അവരുടെ അവിടുത്തെ ഇന്നത്തെ മെനുവിനെകുറിച്ച് അന്വേഷിക്കും എന്തൊക്കെ മെനു ഉണ്ടെന്ന് ചോദിക്കും അത് കഴിഞ്ഞതിന് ശേഷം റേറ്റുകളെക്കുറിച്ച് അന്വേഷിക്കും പിന്നീട് ഓഫറുകളെക്കുറിച്ച് അന്വേഷിക്കും ഏതിലാണോ ഓഫറുള്ളത് ആ ഓഫർ നമ്മുടെ ഇന്ത്യൻ ഫുഡാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ ഓഫറനുസരിച്ച് അതിന് കഴിക്കുവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോവും